വയനാട് ജില്ലയിലെ പ്രധാന പ്രകൃതി വിഭവങ്ങൾ എന്ന് വച്ചാൽ ജലം വനങ്ങൾ ധാതുക്കൾ അതുപോലെ സസ്യങ്ങൾ ഒരുപാട് വന്യജീവികൾ ഫോറസ്റ്റിലുള്ള വന്യജീവി എന്നീ എന്നിവയൊക്കെ പ്രകൃതി വിഭവങ്ങളാ അതുപോലെ തന്നെ പരിസ്ഥിതി വെല്ലുവിളീന്ന് വച്ചാ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മലിനീകരണം അത് അതുപോലുള്ള പ്രശ്നങ്ങള് ഇപ്പൊൾ ഏറ്റവും കൂടുതൽ കണ്ട് വരുന്നത് മലിനീകരണം തന്നെയാണ് ഒരുപാട് ജല മലിനീകരണം മണ്ണ് മലിനീകരണം അതുപോലെ വായു മലിനീകരണം ശബ്ദം മലിനീ എന്നിങ്ങനെ പല മലിനീകരണങ്ങൾ എന്നാൽ പോലും ഇപ്പൊൾ കണ്ടു വരുന്നതെന്ന് വച്ചാല് പുഴകളിലൊക്കെ ഒരുപാട് ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് അത് ജല മലിനീകരണത്തിന് കാരണം ആകുന്നുണ്ട് അതുപോലെ തന്നെ പുക പരിശോധിക്കാതെ ഒരുപാട് വാഹനങ്ങളിൽ നിന്നും ഒരു കറുത്ത കളറുള്ള പുക പോകുന്നത് അത് ഒരു വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ പരിസ്ഥിതി പരിസ്ഥിതി നല്ല വൃത്തിഹീനമായി നല്ല വൃത്തി നല്ല രീതിയിൽ കൊണ്ട് പോകണ്ട നമ്മടെ പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാടും വീടും പരിസരവും ചുറ്റുപാടും ഒക്കെ പ്ലാസ്റ്റികുകൾ വലിച്ചെറിയുകയും അതുപോലെ പ്ല പ്ലാസ്റ്റിക് ബോട്ടിൽസ് വലിച്ചെറിയുകയും ആ രീതിയില് അതൊക്കെ വലിച്ചെറിയുകയും അത് ആന കുരങ്ങൻ എന്നിങ്ങനെയുള്ള ഇപ്പൊൾ ഒരു ഫോ ഒരു വീ വീഡിയോയിൽ തന്നെ നമ്മള് കണ്ടിട്ടുണ്ട് ആനയൊക്കെ പോയിട്ട് പ്ലാസ്റ്റിക് കവറ് ഭക്ഷിക്കുന്നത് അതൊക്കെ വലിയ ഒരു വലിയ ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ത വൃത്തിയായിട്ട് തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ കബിനി നദിയൊക്കെ കാ ജല മഴക്കാലം അല്ലാതെ വേനൽ കാലത്ത് തീരേ വെള്ളം ഇല്ലാതെ വറ്റി വരണ്ടിട്ടാണ് കാണാ അപ്പോൾ തന്നെ അതിലെ മണ്ണ് അതുപോലെ മണൽ വാരുന്നത് പുഴയിൽ നിന്നൊക്കെ മണ മണൽ വാരുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് പുഴയിൽ നിന്ന് അത് അത് ഇപ്പൊൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ചുറ്റുപാടുകളൊക്കെ നമ്മള് നല്ല രീതിയിൽ നല്ല വൃത്തിയോടുകൂടി തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുടെ വീടും പരിസരവും നല്ല വൃത്തിയോ വൃത്തിയിൽ തന്നെ കാണാവുന്നതാണ് ഇത് നമുക്കും നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവർക് തന്നെ നല്ല ഒരു കാര്യമാണ്